എൻ്റെ വീട്ടില് പാചക വാതകം ഉണ്ടാക്കുന്നത് ഈ ജൈവ വാതക പ്ലാന്റുകള് ഉണ്ടാക്കുന്നതെന്നു പറഞ്ഞാല് എന്റെ വീട്ടില് ഞങ്ങളാ കോമ്പൗണ്ടില് ഒരഞ്ചാറ് വീടുകളുണ്ട് ഞങ്ങള്ക്കൊരു ഫാമുണ്ട് ആ ഫാമില് ഈ ആറ് വീട്ടിലേക്കുള്ള പാചക വാതകം ഇതിൽനിന്നാണ് എടുക്കുന്നത് അപ്പോള് അതുപോലെ തന്നെ വീട്ടിലുള്ള അതായത് ആറ് വീട്ടിലും ഉള്ള വേസ്റ്റുകള് അതായത് ഭക്ഷണത്തിന്റെയായാലും മറ്റുള്ള സാധനങ്ങളായാലും നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഈ പാചക വാതകം ഉണ്ടാക്കാനുള്ള ഇതിലേക്കാണ് ഞങ്ങള് എല്ലാതും അല്ല ഈ ആറ് വീട്ട്ത്തെ വേസ്റ്റുകളും കൊണ്ടുവന്നിടാറ് അത് ഞങ്ങള്ക്ക് നല്ലൊരുപകാരപ്രദമാണ് കാരണം ഞങ്ങളുടെ ഈ ആറ് വീട്ടിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള ഗ്യാസ് ഞങ്ങള്ക്കിങ്ങനെ കിട്ടും പിന്നെ അതുപോലെ പശുക്കളുടെ ചാണകം ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെയാണ് ഈയൊരു ഗ്യാസുണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത് പിന്നെ വിറക് ഞങ്ങള് കാശ് കൊടുത്താണ് വാങ്ങുന്നത് അപ്പോള് ഈയൊരു സൗകര്യം ഞങ്ങള്ക്കുള്ളതുകൊണ്ട് വിറക് ഞങ്ങള്ക്ക് അങ്ങനെ വാങ്ങേണ്ടിവരുന്നില്ല അപ്പോള് അത് ഞങ്ങള്ക്ക് നല്ല ലാഭമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ ജൈവ വാതക പ്ലാന്റുകളുണ്ടാക്കാന് പഞ്ചായത്തില്നിന്നും ഞങ്ങള്ക്ക് നല്ല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് നല്ല സഹായ സഹകരണങ്ങളും പഞ്ചായത്ത് ഞങ്ങള്ക്ക് ചെയ്തു തരുന്നുണ്ട് ഇപ്പോഴും ഞങ്ങള് അത് തന്നെയാണ് ഉപയോഗിച്ചോണ്ട് പോരുന്നതും